ആ ചേട്ടാ ഞാനെ നിങ്ങളുടെ വീട്ടിന്റെ പെയിൻറ്റ് അടിക്കാൻ വരുന്ന കോണ്ട്രാക്ട്ര് ആയിരുന്നു ആ ആ ആ ആ നിങ്ങളിന്ന് നിങ്ങളിന്ന് വീട്ടിലേക്കാണോ ഞങ്ങൾക്കിന്ന് വന്നിട്ടേ മറ്റേതിന്റെ പ്ലാനൊക്കെയൊന്ന് റെഡിയാക്കാനായിരുന്നു സീലിങ്ങ് അപ്പം ഞങ്ങളൊരു ഉച്ചകഴിഞ്ഞിട്ടൊരു മൂന്ന് മണിയൊക്കെയാവുമ്പം ഇറങ്ങാം ആ അപ്പം നിങ്ങൾ ഇത് പോലെ എവിടുന്നാ പെയ്ൻറ്റ് എടുക്കുന്നത് അതിന് ആ ആ അതല്ല ഇല്ല അപ്പോൾ ഞങ്ങൾ എടുക്കണോ എന്ന് ചോദിക്കുകയാ കാരണം ഇപ്പോൾ കൂടുതലും ചിലരൊക്കെ എന്ന് വെച്ചാൽ പുറത്തുനിന്ന് പെയ്ൻറ്റ് വാങ്ങിച്ച് തന്ന് ഞങ്ങളടിക്കുന്നുണ്ട് അതാ ചോദിച്ചത് ഞങ്ങളെടുക്കുവാണെങ്കിൽ ഞങ്ങൾ ചെറിയ റെയ്റ്റ്ൽ ചെയ്തുതരാം പിന്നെ അത് നിങ്ങളുടെ വീടെത്ര സ്ക്വയർ ഫീറ്റ് ആണ് ആണോ ആ അപ്പം എങ്ങനാ മേളിൽ വാർപ്പാണോ അതോ ഓടാണോ ഇട്ടേക്കുന്നത് വാർപ്പിന് മേളിൽ ഓട് വരുന്നുണ്ടോ ആ അപ്പം നിങ്ങള് ഏത് കളറാണ് ഉദ്ദേശിക്കുന്നത് ആ ആ സീലിങ്ങ് ചെയ്യുന്നുണ്ടോ അകത്ത് അപ്പോൾ സീലിങ്ങ്ന് നമുക്ക് പെയ്ൻറ്റ് കൊടുക്കണോ ആ ആ അപ്പോൾ പുട്ടിയൊക്കെ ഇട്ടല്ലേ ആ പുട്ടിയിട്ട് ആ പുട്ടിയിട്ടുതന്നെയാ നല്ലത് അതാവുമ്പം മറ്റേ ഗ്രെയ്ൻസൊ കാര്യങ്ങളൊന്നും വരത്തില്ല പിന്നെ ഇപ്പം നിങ്ങൾ ഫുള്ള് റൂമിനൊരു കളറാണോ അതോ ഓരോ റൂമിന് ഓരോ സെപ്പറേറ്റ് കളറും പിന്നെ ഞങ്ങളുടെതിനകത്ത് ആർട്ട് വർക്ക് ഒക്കെ വരുന്നുണ്ട് ആർട്ട് പടം വരച്ചൊക്കെ ആ ആ പിന്നെ നിങ്ങൾക്ക് ഡിസെയ്ന് എന്തെങ്കിലും വേണോ ഞങ്ങളുടെ കുറച്ച് മോഡൽസുണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ആ ഞങ്ങളൊരു മൂന്ന് മണിയൊക്കെ ആകുമ്പം എത്തും പിന്നെ ഇതെവിടാ സ്ഥലം എവിടെയാ വരുന്നത് ആ ആ എനിക്കൊന്ന് ലൊക്കേഷൻ അയച്ചേക്കണേ ആ പിന്നെ ഞാൻ ഞാൻ പറയാം ഇതിന്റെ റെയ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഫീറ്റ്ന് പത്ത് രൂപ വെച്ചാണ് വരുന്നത് ഞങ്ങൾ ചെയ്യുന്നതുകൊണ്ടേ ആ സ്ക്വയർ ഫീറ്റിന് പത്ത് രൂപ വെച്ച് ഇപ്പോൾ നമുക്ക് കുറച്ചൊക്കെ അഡ്ജെസ്റ്റ് ചെയ്ത് തരാമെന്നെ ആ ഓക്കെ എന്നാൽ ഞാൻ വിളിക്കാം കേട്ടോ